ഹലോ ലത ചേച്ചി ഇത് ഞാനാണെ സിനു ഞാൻ ചേച്ചീനെ ഇപ്പം അത്യാവശ്യമായിട്ട് വിളിച്ചത് ഒരു കാര്യം പറയാന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ചേച്ചിക്ക് അറിയാമല്ലൊ ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ് പഠിച്ചത് സോഷ്യൽ വർക്ക് അപ്പം നമ്മുടെ ലയോള കോളേജിലാണ് പഠിച്ചത് അപ്പം പഠിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് പുറത്ത് പോകണമായിരുന്നു ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാ പാസ്സ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ പാസ്സ്പോർട്ടെടുക്കാന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറ് കാണാനില്ല അപ്ലിക്കേഷൻ ഫോമേ കാണാനില്ല അപ്പോൾ അപ്ലിക്കേഷൻ നമ്പറെനിക്കെടുക്കുക പറ്റുന്നില്ല അത് കളഞ്ഞ് പോയി അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ അവരുടെ ഓഫീസില് പോയിരുന്നു അപ്പോൾ അവര് പറയുന്നു പഴയ പാ ആപ്ലിക്കേഷൻ ഐ ഡി കണ്ട് എങ്ങനെങ്കിലും കണ്ടു പിടിച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലേൽ ഇത് ആദ്യം തൊട്ടു ഒന്നേന്നു ചെയ്യണം ചേച്ചിക്കറിയാമല്ലോ ഈ പാസ്പോർട്ടെടുക്കുന്ന സംഭവം തന്നെ ഭയങ്കര പൈസ കൂടുതലാണ് അപ്പം ആദ്യം തൊട്ട് ഒന്നേന്ന് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഒന്നാമത്തെ പൈസയില്ല അതുപോലെ തന്നെ ഞാ ചേച്ചിക്ക് നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ വർക്കും സാമൂഹ്യ പ്രവർത്തനവുമാണ് പഠിച്ചത് അപ്പം അതിൻ്റെ ഞാ ഇപ്പോൾ എന്തിനാ വിദേശത്ത് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കവടെ ജോലി ചെയ്യണമെന്നാണ് ആദ്യമേ ഇതിൻ്റെ സോഷ്യൽ വർക്കും സാമൂഹ്യ പ്രവർത്തനം എടുത്തതിൻ്റെ മുൻപുള്ള ആദ്യമേ ആഗ്രഹം പുറത്ത് പോയി ജോലി എടുക്കണം എന്നായിരുന്നു അപ്പോൾ ഞാന് ഇപ്പോൾ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒര് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് ഞാ അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ആദ്യം അവിടുത്തെ ഏതെങ്കിലുമൊരു ബേസിക്കായിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ച് എ ഏതേലും ഒരു പാർട്ട് ടൈം ജോ ജോലിക്ക് കയറാനാണ് ഞാനാഗ്രഹിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ് ചേച്ചിക്ക് അറിയാമല്ലോ കടം എടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റും ഇതെല്ലാംകൂടെ ഒരുപാട് പൈസയാകും അപ്പം അവിടെപ്പോയി പാർട്ട് ടൈം ജോലി ചെയ്ത് കടങ്ങളൊക്കെ തീർത്തതിന് ശേഷം പിന്നെ ഞാ പഠിച്ച് പോയ ആ സബ്ജെറ്റിന് അനുസൃതമായിട്ടുള്ള കോഴ്സിന് കയറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചാൻസ് എൻറ്റൊരു പ്രൊഫസർ അവിടെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാ പോകാൻ വേണ്ടി നിന്നത് അപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് അപ്പം അപ്ലിക്കേഷൻ ഈ പാസ്സ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡി കളഞ്ഞു അപ്പം ഇവര് ഒന്നേന്ന് ചെയ്യാൻ വേണ്ടി പറയുന്നു അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന് പറ്റിയെങ്കിൽ ഈ ഒന്നേന്ന് ഇവരുടെ കയ്യിൽ നിന്ന് റിക്കവറി സിസ്റ്റത്തിൽ നിന്ന് വല്ലതും തിരിച്ചെടുക്കാനുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടവര് ഒരുപാട് പൈസയൊക്കെ ചോദിക്കുന്നത് അപ്പം ചേച്ചി അതിനൊന്ന് സഹായിക്കുവായിരുന്നു നല്ലതായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ അല്ലെ വർക്ക് ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരനോടുകൂടിയൊന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാരുന്നു കാരണം അത്ര അത്യാവശ്യമായിരുന്നു ചേച്ചി ചേച്ചി വീട്ട് വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ വീട്ടില് ഭയങ്കര പ്രശ്നമൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറിയില്ലെങ്കിൽ ശരി ആകത്തില്ല അപ്പം പുറത്തൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി ആത്യാവശ്യം നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കടങ്ങളൊക്കെ ഒന്ന് തീർത്തൊന്ന് തിരിച്ച് പിടിക്കാന് വേണ്ടി പറ്റും അപ്പം ചേച്ചിയൊന്ന് ചേട്ടനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു